ഇപ്പോൾ തലവേദനയൊക്കെ പോലുള്ള അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിട്ട് ഇപ്പം ഗ്രാമങ്ങളിൽ ഞമ്മള് കണ്ട് വരുന്ന വരുന്ന ഒരു നാട്ടു വൈദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ തലവേദന അങ്ങനെയുള്ള തലയ് തലക്ക് സംബന്ധമായിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാട്ടുള്ളി പോലെത്തെ സാനങ്ങളൊക്കെ വാറ്റിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അത് ജസ്റ്റ് സ്മെൽ ചെയ്തു കഴിഞ്ഞാൽ മാറുന്നൊക്കെയാണ് പറയുന്നത് കാരണം ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു തരുന്നത് കാരണം കാട്ടുള്ളിന്റെ ആ നീര് ജസ്റ്റ് സ്മെൽ ചെയ്ത് കയ്യിൽ കുറച്ച് ഇതാക്കീട്ട്സ്മെൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തലവേദനേം കാര്യങ്ങളൊക്കെ മാറുന്നാണ് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ പറയുന്നത് അപ്പോൾ അതൊരു നാട്ടു വൈദ്യായിട്ടാണിപ്പോൾ സമൂഹത്തിൽ എല്ലാവരും നമ്മുടെ പ്രദേശത്ത് ഉള്ളവരൊക്കെ കാണുന്നത് പിന്നെ കൂടുതലും നമ്മുടെ വീട്ടിലൊക്കെന്ന് പറയുമ്പോൾ നാട്ടു വൈദ്യല്ല എന്നാലും ആ കൂടൂതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത് വിക്സ് അമൃതാഞ്ചൻ അങ്ങനത്തെ സാധങ്ങളൊക്കെയാണ് കൂടുതലിപ്പോൾ യൂസ് ചെയ്യുന്നത് എല്ലാവരും എന്താ പറയാ പുതിയ രീതികളിലേക്ക് മാറുകയാണ് ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്നത് എന്നാലും വളരെ കുറച്ചാൾക്കാർ മാത്രാണ് പണ്ടുള്ള രീതികളൊക്കെ ഇപ്പോഴും എന്താ പറയാ ഉപയോഗിച്ച് വരുന്നവർ അപ്പോൾ അവരുടെ കയ്യിലൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ ഈ കാട്ടുള്ളി വാറ്റിയ സാധനങ്ങൾ അങ്ങനെയുള്ള സാനങ്ങളൊക്കെ കണ്ട് വരുന്നത്